കല്ലറ ടേസ്റ്റ് ഇൻ പാർക്കല്ലേ എന്തൊക്കെയാ കഴിക്കാനുള്ളത് ഓക്കേ അൽഫാമിനെങ്ങനെയാണ് വില ആ ബീഫ് ബിരിയാണിയുണ്ടോ എങ്ങനെയാ റേറ്റ് നൂറ്റി എൺപതല്ലേ ആ ഓക്കേ ചിക്കൻ ബിരിയാണിക്കോ ആ ഓക്കേ ഓക്കേ ഡെസേർട്ട് ഐറ്റം എന്തൊക്കെയുണ്ട് ബ്രൌണിയോ ആ ഓക്കേ അതെങ്ങനെയാ റേറ്റ് വരുന്നത് നൂറ്റൻപതോ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഒരൂ നാല് ബീഫ് ബിരിയാണിയും രണ്ട് ബ്രൌണിയും പിന്നെ മിൻറ്റ് ലൈമുണ്ടോ അപ്പോൾ ഒരു നാല് മിൻറ്റ് ലൈമും ആ ഒരു ഷവർമ റോളൂ കൂടിയുണ്ട് ഷവർമ റോളുണ്ടോ ഓക്കെ അപ്പോൾ ഒരു ഷവർമ റോളുകൂടെ ഓക്കേ ഓക്കേ എൻ്റെ പേര് ആർച്ച അഡ്രസ്സ് വൈശാഖം ചെല്ലാപച്ച ഭരതന്നൂർ പി ഒ നമ്പറ് കൂടെ തരാം ഓക്കേ എൺപത് എൺപത്താറ് അറുപത്തേഴ് മുന്നൂറ് നാല് ഓക്കേ എന്നെ വിളിച്ചാൽ മതി ഓക്കെ വാട്സാപ് ചെയ്തേക്കൂ ഇതിൻ്റെ റേറ്റെല്ലാം ഓക്കേ ഓക്കേ ശരി